ഹലോ ഞാനേ ഒരു നൈഫാണ് വാങ്ങിയത് കത്തി അതിൻ്റെ ഇത് പറയുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റീ സ്റ്റീലിൻ്റെ കത്തിയായിരുന്നു ഞാൻ വാങ്ങിയത് അപ്പോൾ നമ്മളതിൻ്റെ അതിൻ്റെ എടുത്ത് വീട്ടിൽ കൊണ്ടു വന്നു വെക്കുന്ന സമയത്തു തന്നെ ഉപയോഗിച്ച സമയത്തു തന്നെ അതിൻ്റെ പിടുത്തം അതിൻ്റെ ഹാൻഡിൽ അത് ലൂസായിരുന്നു ലൂസായിട്ട് ഇങ്ങനെ ഇളകി പറ്റി പോന്നിട്ടില്ല പക്ഷെ അന്നേരം ആകെ ഇളകിയിട്ട് ഇങ്ങനെ അതിൻ്റെ സ്ക്രൂ എന്തോ ഒരു ലൂസ് ആയ പോലെയായിരുന്നു അത് ഞാൻ ടൈറ്റ് ചെയ്തു ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രിപ്പ് കാര്യങ്ങളൊന്നും അതിന് ഹാൻഡിൽ കാര്യമായിട്ടുള്ള ഗ്രിപ്പ് ഇല്ല അതു കൊണ്ടു തന്നെ നമുക്ക് തോന്ന കൃതിയെ പോലെയുള്ള പച്ചക്കറിയാണെങ്കിൽ വെജിറ്റബിൾസ് ആണെങ്കിലും കട്ട് ചെയ്യാനൊന്നും കഴിയുന്നില്ല അങ്ങനെ ഇപ്പോഴതു കൊണ്ടു തന്നെ അങ്ങനെയൊക്കെ കയ്യിൽ നിന്ന് ലൂസ് ലൂസായിങ്ങനെ പോകുക പ്രത്യേകിച്ചും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കഴിയുമ്പം എണ്ണയും അങ്ങനെ വഴുവഴുപ്പുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത്രയും ലൂസായിട്ട് ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇളകിയിട്ട് ഇങ്ങനെ പോകുന്നു അപ്പം നമുക്ക് നമ്മൾ വിചാരിച്ചത്ര ഇതായി തോന്നുന്നില്ല യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിലത് ഈ ചെറിയ എന്തെങ്കിലുമൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ ഗ്രിപ്പുണ്ടെങ്കിലും അതു പോലെ തന്നെ അതിൻ്റെ ഹാൻഡിൽ കുറച്ചൊക്കെ ടൈറ്റാണെങ്കിലും അതൊക്കെ ഓക്കെയാണ് ഇല്ലാത്തതു കൊണ്ടാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ വരുന്നത്